ഒരു യാത്രക്കാരനെന്ന നിലയ്ക്ക് ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളും പെട്രോൾ പമ്പുകളും ഭക്ഷണ സാധ്യതകളും എല്ലാം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുതന്നെയാണ് നമ്മളിൽ പലരും ഞാനും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ടോയ്ലറ്റ് സൗകാര്യം ഉണ്ടെങ്കിൽത്തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് പലയിടത്തും നമ്മൾ കാണാറുള്ളത് വേണ്ടത്ര വേണ്ടത്ര ശുചീകരണം ഒന്നും നടത്താത്ത ടോയിലറ്റുകൾ നമ്മൾക്ക് നമ്മളുടെ പ്രദേശങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതിനാൽ അത്രയും നമ്മൾക്ക് വാർദ്ധക്യ നമ്മൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് വരുന്നതാണ് ഒരുപാട് അസുഖങ്ങളും നമ്മൾക്ക് അങ്ങനത്തെ ടോയിലറ്റുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വന്ന് പെടുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അത്രയ്ക്ക് അത്യാവശ്യമായാൽ പോവുകയല്ലാതെ വേറെ നിവർത്തി ഇല്ലാത്ത അവസ്ഥയായിരിക്കും നമുക്ക് സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ടോയിലറ്റ് പോകുന്നത് വേറെ വഴിയും ഉണ്ടായിരിക്കില്ല അവർക്ക് പല സാഹചര്യങ്ങളും ടോയിലറ്റ് ഉപയോഗിക്കണ്ടതായിട്ട് വരുന്നതാണ് വല്ലാത്ത പ്രതിസന്ധി തന്നെയാണത് ഇനി പെട്രോൾ പമ്പുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പോകുന്നവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് എല്ലാ സ്ഥലത്തും പെട്രോൾ പമ്പുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെയിൻ സിറ്റിയിൽ നിന്ന് നമ്മൾ പെട്രോളടിച്ച് പോയിട്ട് വേറെ ഏതെങ്കിലും നമ്മൾക്ക് നമുക്കധികം പെട്രോൾ പമ്പില്ലാത്ത വില്ലേജ് ഗ്രാമത്തിലൊക്കെ നമ്മളെത്തിപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നതാണ് നമ്മൾക്ക് പെട്രോൾ തീർന്നു കഴിഞ്ഞാലാണ് മനസ്സിലാവുക അയ്യോ ഇനിയെന്തു ചെയ്യും എന്നുള്ളത് അപ്പോൾ പുറത്തുപോയി പെട്രോൾ വാങ്ങിവന്ന് നമ്മൾക്ക് പെട്രോളടിക്കേണ്ട അവസ്ഥ വരെ വരാറുണ്ട് ഒരുപാടു പേർക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളും വന്നു പെടാറുണ്ട് ഭക്ഷണ സാധ്യതകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നല്ല നല്ല നല്ല നല്ല ഭക്ഷണം ഉള്ള സ്ഥലങ്ങൾ കുറവായിരിക്കും നമ്മളതുപോലെ ഉൾപ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചിലപ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് പിടിക്കാത്ത ഭക്ഷണങ്ങളും നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഭക്ഷണം മാത്രമായിരിക്കും ചില സമയങ്ങളിൽ ഇഷ്ടമാവുന്നത് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട സാഹചര്യം പോലും വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ഒരു യാത്രയ്ക്കിടയിൽ ഭക്ഷണ സാധ്യതകൾ ഭക്ഷണ സാധ്യതകളെന്നു പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത ഭക്ഷണങ്ങളും അതേപോലെതന്നെ ഹോട്ടലുകളില്ലാത്ത അവസ്ഥയും നമ്മളെല്ലാം അഭിമുഖീകരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും നല്ല ഭക്ഷണവും നല്ല വെള്ളം പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് യാത്രയ്ക്കിടയിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്